സാർ മേ ഐ കം ഇൻ ആ ഗുഡ് മോർണിംഗ് സാർ മാം ഇവിടെ ഇപ്പോൾ എൻ്റെ രണ്ട് പിള്ളേർക്ക് അഡ്മിഷൻ എടുത്ത് വന്നതാ ഒരാൾ എൽ കെ ജിയിലും ദിവ്യ ഒരാൾ യു കെ ജിയിലും നവ്യ അത് നാട്ടിലിരുന്ന് പഠിച്ചത് എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഗവൺമെൻറ്റ് ജോബ് ആണേ അപ്പം എനിക്ക് ഒരു ട്രാൻസ്ഫർ വന്നപ്പോൾ മാറ്റാൻ വേണ്ടീട്ട് അപ്പം അവിടെനിന്ന് കൊണ്ട് വന്നതാ അല്ല അല്ല ഒന്നിൽനിന്ന് പാസ് ആയി ആ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഡയറക്റ്റ് കമ്പ്ലീറ്റ് അഡ്മിഷൻ പിന്നെ ഏതാ ഇവൾക്ക് ചെറുതിന് എൽ കെ ജിക്ക് ഇവിടെ പ്രൊസീജിയർ എന്തൊക്കെയാ ഇപ്പം അഡ്മിഷൻ എടുക്കാൻ വേണ്ടീട്ട് ആ ആ അത് അവിട തന്നിട്ടുണ്ട് പഴയ സ്കൂളിൽ നിന്ന് അത് തന്നിട്ടുണ്ട് പാസ് ആയീന്ന് ഉള്ളത് പാസ് ആയി ആ ആ ഓക്കെ അപ്പം ഈ ചെറുതിൻ്റെയോ ആധാറും രണ്ട് ഫോട്ടോയും മാത്രം മതിയോ ഓ അപ്പം ഇവിടുത്തെ എങ്ങനെ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ട്രാവൽ നമ്മൾ ഇപ്പം താമസിക്കണത് സ്കൂള് സ്കൂളിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് നമ്മുട നമ്മുട വഴിക്ക് ഉണ്ടാവുമോ നമ്മൾ കോട്ടായീന്ന് ലെഫ്റ്റ് പോവണം നമ്മൾക്ക് അങ്ങനെ ആണ് പോവേണ്ടത് അപ്പോൾ ബസ് ഉണ്ടാവുമല്ലേ ഈ ബസ്സ് കാലത്ത് എപ്പോഴാ എത്തുക ഒരു എട്ട് എട്ട് ഒമ്പതിൻ്റെ ഇടയിൽ ആണോ അതോ ആ ഓക്കെ ഫൈൻ അല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് പത്ത് മണിക്ക് അവിടെ അപ്പം പിള്ളേർ കേൾക്കുന്ന ഒരു സമയം ആണേ ഒരു എട്ട് എട്ടര ആ ഓക്കെ സാർ അപ്പം ഇതിന് ചാർജസ് ഒക്കെ എങ്ങനെ ഇരിക്കും ഈ രണ്ട് പിള്ളേർക്ക് എന്നാലും എന്തോ ആ അല്ലെങ്കിൽ സാറ് വാട്സപ് ചെയ്താലും മതി കുഴപ്പം ഉണ്ടാവില്ല ആ അപ്പം അപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ ആ അപ്പോൾ അഡ്മിഷൻ മാമിന് എടുക്കണോ അതോ അഡ്മിഷൻ കൊണ്ടുവരുമോ എന്താണ് ആ ഓക്കെ സാർ പിന്നെ പിള്ളേരെ നന്നായിട്ട് നോക്കണം ഏഹ്

ആ അപ്പം അത് വരെ ബാക്കി ഉള്ളവർ ഉണ്ടാവുമല്ലോ അല്ലേ

ആ ആ ഓക്കെ സാർ ഓക്കെ താങ്ക്സ്